നമ്മുടെ നാട്ടിലെ വിവാഹങ്ങളെന്ന് പറഞ്ഞാലെ ഒന്നുകില് ബ്രോക്കർ ആയിരിക്കും അല്ലെങ്കില് നമുക്ക് പരിചയം ഉള്ള ആരേലും ഒരു ആലോചന കൊണ്ടുവരും അത് നമ്മള് മാക്സിമം നോക്കും നമുക്ക് പറ്റിയ കുടുംബക്കാരാണോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മള് മുന്നോട്ട് ആലോചിക്കാനുള്ള തയ്യാറെടുക്കും അപ്പോള് നമ്മള് ആദ്യമേ ചെറുക്കനും ചെറുക്കൻ്റെ വീട്ടുകാരും അറിയാവുന്ന കുറച്ച് പേരുംകൂടെ പെണ്ണിൻ്റെ വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെന്ന് നമ്മള് അവരെക്കുറിച്ച് അന്വേഷിച്ചതൊക്കെ വച്ച് നോക്കുമ്പോള് നമുക്ക് പറ്റുന്നതാണെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാം പെണ്ണിനെ കാണും പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും ജോലികാര്യങ്ങൾ ജോലി ആണെങ്കിൽ ജോലി കാര്യം അന്വേഷിക്കും കുടുംബക്കാര് അന്വേഷിക്കും കുടുംബ ആൾക്കാരെ കുറിച്ച് അന്വേഷിക്കും ഇവര് എത്ര നാള് അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് എന്നും അങ്ങനനെല്ലാം നമ്മള് അന്വേഷിച്ചിട്ട് നമ്മുടെ കാര്യങ്ങള് അവരോട് പറയും അവര് നമ്മളെക്കുറിച്ച് അന്വേഷിക്കും എന്നിട്ട് രണ്ട് കൂട്ടർക്കും താൽപര്യമാണെങ്കിൽ നമ്മള് ഉറപ്പീര് എന്നുപറയുന്നൊരു പരിപാടി നടത്തും അതായത് ആദ്യം ചെറുക്കൻ്റെ വീട്ടിലാണ് ചെറുക്കൻ്റെ അത്യാവശ്യക്കാരെ കുറച്ച് പേരെ വിളിക്കും പെണ്ണിൻ്റെ വീട്ടുകാര് അവർക്ക് വരാൻ പറ്റുന്നവര് അതിനൊരു കണക്ക് പറയും അവര് വരും എന്നിട്ട് നമ്മള് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നമ്മള് അവരുമായിട്ട് എല്ലാം സംസാരിച്ച് കാര്യങ്ങള് മനസ്സമ്മതം കല്യാണം ഡ്രസ്സ് എടുപ്പ് ഇവയെല്ലാം നമുക്കും അവർക്കും പറ്റുന്ന ദിവസങ്ങള് നമ്മള് ഉറപ്പിച്ച് കാർന്നോമ്മാരെല്ലാം കൂടെ പറഞ്ഞ് തീരുമാനിച്ചിട്ട് നമ്മള്ക്ക് പിന്നെ മനസ്സമ്മതത്തിനുള്ള ഡേറ്റ് നമ്മള് കുറിച്ച് കഴിയുമ്പോള് അന്ന് നമ്മള് മനസ്സമ്മതം പെണ്ണിൻ്റെ വീട്ടിവച്ച് പെണ്ണിൻ്റെ പള്ളിയില് വച്ച് നടത്താനായിട്ട് നമ്മള് തയ്യാറാവും അത് കഴിയുമ്പോള് പിന്നെ മനസ്സമ്മതം കഴിയുമ്പോള് പിന്നെ ഒരു ഡ്രസ്സ് എടുപ്പ് ഡ്രസ്സ് എടുപ്പ് എന്ന് പറഞ്ഞാല് അത്യാവശ്യക്കാര് പെണ്ണിൻ്റെ വീട്ടില്നിന്നും ചെറുക്കൻ്റെ വീട്ടില്നിന്നും അത്യാവശ്യക്കാര് പോവുക അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ സെലക്റ്റെയ്യുക പിന്നെ മധുരം വയ്പ് എന്നൊരു പരിപാടി ഉണ്ട് തലേദിവസം ഉണ്ട് അതിന് നമ്മള് നമ്മളെ അയല്വക്കം കാരെ ബന്ധുക്കാരെ എല്ലാം വിളിച്ച് ഒരു പരിപാടികള് ഒക്കെ നടത്തി ഒരു ഭക്ഷണമൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ പിരിഞ്ഞ് പോണ് പിറ്റേ ദിവസം കല്യാണം കല്യാണമെന്ന് പറയുന്നത് ചെറുക്കൻ്റെ പള്ളിയിലാണ് അപ്പോള് നമുക്ക് അത്യാവശ്യക്കാരെ നമ്മള്ക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ടവരെ എല്ലാം വിളിച്ച് നമ്മുടെ അയല്വക്കക്കാരെയും സഹോദരങ്ങളെയും

നമ്മള് അന്വേഷിക്കാവുന്ന അത്രയും ആൾക്കാരോട് അന്വേഷിച്ചേച്ച് വേണം ഒരു വിവാഹം നമ്മള് ഉറപ്പിക്കാൻ അതായത് ചെറുക്കനോ പെണ്ണോ വേറെ വല്ലവരെയും കെട്ടിയിട്ടുണ്ടോ പിള്ളേരുണ്ടോ ഇപ്പോഴത്തെ കാലമായതുകൊണ്ട് ഇതൊന്നും നമുക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മള് അവരെ കുറിച്ച് രണ്ടുകൂട്ടരേയും കുറിച്ച് പിന്നെ അവിടെ വീട്ടിലെ മാതാപിതാക്കളെങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെങ്ങനെ ആയിരുന്നു മുൻകാല ചരിത്രങ്ങളൊക്കെ അറിയാവുന്നവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മള് എത്രയും നമുക്കു യോജിച്ചതാണെന്ന് വരുന്നത് വരെ നമ്മള് അന്വേഷിച്ചേച്ച് വേണം വാക്ക് കൊടുക്കാൻ അതായത് കല്യാണം കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും നല്ലത് നമ്മള് അതിന് മുമ്പേ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് തയ്യാറാക്കിയിട്ട് വേണം നമ്മള്ക്ക് ഈ വിവാഹം ഉറപ്പിക്കാന് അതും നമ്മുടെ മനസ്സിന് ചെറുക്കനും പെണ്ണിനും നൂറ് ശതമാനം മനസ്സിന് ഇണങ്ങുന്നതാണെങ്കിൽ മാത്രമേ നമ്മള്ക്ക് അതിന് ഇതു കൊടുക്കാൻ പറ്റത്തുള്ളൂ അതായത് നമ്മള് വാക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് സ്വത്തോ സൗകര്യമോ ഒന്നും അല്ല നമുക്ക് ആവശ്യം നമുക്ക് നമ്മുടെ കൂടെ നില്ക്കുന്ന നമ്മുടെ രീതിയിൽ ഒതുങ്ങി ഇരിക്കുന്ന അടക്കവും ഒതുക്കവുമുള്ള കുട്ടികളെയാണ് നമ്മള് വിവാഹത്തിന് തെരഞ്ഞെടുക്കേണ്ടത് അല്ലേൽ പിന്നെ പലപല പ്രശ്നങ്ങളാല് കുടുംബജീവിതങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവുകയും അത് പിന്നെ വലിയ വലിയ ഇതായിത്തീർന്ന് കുടുംബബന്ധങ്ങളൊക്കെ തകരാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും നമ്മള് ഇടപെടാതെ നമ്മുടെ കുടുംബത്തിന് പറ്റിയതും നമ്മള്ക്ക് പറ്റിയ ആൾക്കാര് നമ്മുടെ കുടുംബത്തിന് പറ്റിയ ബന്ധതയാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു വിവാഹം ആലോചിക്കാന് അതായത് സ്വത്തോ സൗകര്യമോ അല്ലെങ്കിൽ വലിയ ജോലിയോ അതൊന്നും നമ്മള് പ്രതീക്ഷിച്ച് ഒരു കാരണവശാലും വിവാഹം ഉറപ്പിക്കല്ല് അതായത് അവർക്ക് ഒത്തിരി സ്വത്തുണ്ട് അല്ലങ്കിൽ അവര് അങ്ങനെ അവര് ഇങ്ങനെ അവർക്ക് ഒത്തിരി ഏക്കര് സ്ഥലം ഉണ്ട് അല്ലങ്കിൽ ഇപ്പോള് ഒത്തിരി കാശുണ്ട് രണ്ട് കാറുണ്ട് മൂന്ന് ബസ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് നമ്മള് ഒരുകാരണവശാലും ഒരു കല്യാണം ഉറപ്പിക്കരുത് അത് നമ്മള് സ്വത്തിനെ സ്നേഹിക്കുന്നവരാവും അതായത് നമ്മള്ക്ക് നമുക്ക് യോജിച്ച ആണാണേലും പെണ്ണാണേലും നമുക്ക് യോജിച്ച ഒരു പെൺകൊച്ചിനെ ആൺകൊച്ചിനെ കെട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഈ സ്വത്തിനെക്കാട്ടിലും ഒക്കെ നല്ലത് സമാധാനം ആണ് സമാധാനം ഉള്ള കുടുംബം ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ നമുക്ക് ഇമ്പം ഉള്ള ഒരു കുടുംബമായിത്തീരണം എങ്കിൽ സമാധാനം വേണം സമാധാനം സ്ഥാപിക്കുകയാണെങ്കിൽ നമ്മള് പണത്തെയോ സ്വത്തിനെയോ ഒന്നും ആശ്രയിക്കാതെ നല്ല ഒരു ഭാവിജീവിതം ഭാസുരമാക്കാൻ നല്ലൊരു ബന്ധം നടത്തുന്നതായിരിക്കും